എൻ്റെ തോട്ടത്തിൽ നടാനുള്ള ചെടികൾ ഞാൻ ശേഖരിക്കുന്നത് ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്നൊക്കെ ഞാൻ ചെടിയുടെ ഓരോരോ കമ്പ് കൊണ്ടുവരും എന്നിട്ട് അതിനെ നട്ട് വളർത്താറാണ് പിന്നെ ഈ ചെടികളൊക്കെ വിൽക്കുന്ന നഴ്സറികൾ നേഴ്സറികൾ ഒരുപാട് ആശ്രയിക്കാറുണ്ട് അവിടെ പോയിട്ട് ഒരുപാട് ചെടികൾ മേടിക്കാറുണ്ട് പലതരത്തിലുള്ള ചെടികൾ കാണുമ്പോൾ പുതിയ പുതിയ തരത്തിലുള്ള ചെടികൾ കാണുമ്പോൾ നഴ്സറികളിൽ പോയിട്ട് ചെടി ചെടികളും മേടിക്കാറുണ്ട് അവിടുന്ന് തന്നെ അതിനുള്ള വിത്തും വളവും വിത്തല്ല വളമൊക്കെ മേടിച്ച് അതിൻ്റെ അതിൻ്റെതായ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ചെടികൾ നട്ടുവളർത്തുന്നത് പിന്നെ അയൽവക്കത്തെ വീടുകൾ അയൽവക്കത്തെ വീടുകളിലൊക്കെ പുതിയ പുതിയ ചെടികൾ അവർ കൊണ്ട് നടുമ്പോൾ അതിൻ്റെ ഓരോരോ കമ്പുകളും കൂടി ശേഖരിച്ചിട്ട് ഞാൻ കൊണ്ട് നടാറുണ്ട് അങ്ങനെ യാത്രകൾ പോകുമ്പോൾ യാത്രകൾ ഒരുപാട് ഈ ഊട്ടി മൈസൂര് അങ്ങനെയൊക്കെ യാത്രകൾ പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഒരുപാട് തരം ചെടികൾ ആ അങ്ങനെയുള്ള തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാകും അവിടുന്ന് ശേഖരിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ നടാറുണ്ട് പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഈ റോഡരികുകളിൽ പോലും പിന്നെ ഒരുപാട് നമ്മുടെ നാട്ടിൽ കാണാത്ത തരത്തിലുള്ള ഒരുപാട് ചെടികൾ ഉണ്ടാവും അതൊക്കെ റോഡ് സൈഡിൽ നിന്ന് തന്നെ അതിൻ്റെ ഓരോരോ കമ്പ് ശേഖരിച്ച് അതിനെ കൃത്യമായ രീതിയിൽ വീട്ടിൽ നട്ടു വളർത്താനാണ് ശ്രമിക്കാറുള്ളത് പിന്നെ ഒരുപാട് ചെടി നടുന്ന ശീലമുള്ളതുകൊണ്ട് എൻ്റെ വീട്ടിൽനിന്ന് പുറത്തു പോകുന്നവരെല്ലാം പുതിയതായി നമ്മുടെ വീട്ടിൽ ഇല്ലാത്ത രീതിയിലുള്ള ചെടികൾ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് കൊണ്ട് തരാറുണ്ട് മറ്റുള്ള പല നാടുകളിൽ പോയിട്ട് വരുമ്പോൾ പല അടുത്തുള്ള നാടുകളിലും ബന്ധുവീടുകളിലും എല്ലാം പോയിട്ട് വരുമ്പോൾ അങ്ങനെ എനിക്ക് ചെടികൾ കൊണ്ട് തരാറുണ്ട് അതൊക്കെ നട്ടുവളർത്താറുണ്ട്